ആളുകൾ അവരവരുടെ സ്വന്തം നാടുകളെക്കുറിച്ച് അറിയുന്നത് നല്ല കാര്യം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമുക്കറിയാന് പറ്റും പിന്നെ ന്യൂസ് കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്നൊക്കെ അറിയാന് പറ്റും പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നമുക്ക് എത്ര സംസ്ഥാനങ്ങള് ഉണ്ട് എന്നൊക്കെ അറിയുന്നത് നല്ല കാര്യം തന്നെയാണ് ആ സംസ്ഥാനത്ത് അവര് സംസാരിക്കുന്ന ഭാഷകളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആചാരങ്ങള് അതൊക്കെ പഠിച്ച് വെച്ചാല് നമുക്കൊരു സുഖമാണ് നമുക്ക് നമുക്ക് ആ സ്ഥലത്തേക്ക് പോവേണ്ടിവന്നാൽ ആ സംസ്ഥാനത്തേക്ക് പോവേണ്ടിവന്നാൽ തന്നെ നമുക്കൊന്നുകൊണ്ടും പേടിക്കാതെ നമ്മുക്കവരോട് സംസാരിക്കാനുള്ള ഭാഷ അറിയാവുന്നതിലൂടെ ഇംഗ്ലീഷ് ആണേല് പോലും ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് സംസാരിക്കാന് പറ്റും നമ്മുടെ ഭാഷേനെക്കാട്ടും കൂടുതല് നമ്മള് ഇംഗ്ലീഷ് പഠിച്ചാൽത്തന്നെ നമുക്ക് അവരോട് സംസാരിക്കാം നേരിട്ട് പറയാനും പറ്റും അതുകൊണ്ട്തന്നെ ആളുകള് അവരുടെ സ്വന്തം സംസ്ഥാനത്തെക്കുറിച്ച് അറിയുന്നത് നല്ല കാര്യം തന്നെയാണ് പിന്നെ ഭൂമി ശാസ്ത്രത്തെക്കുറിച്ച് അറിയുന്നതും നല്ല കാര്യം തന്നെയാണ് ഭൂമിയെ ഭൂമിയില് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളും നല്ലതാണ്